ആ അതെ ഞാൻ ഗ്രേസി ഡോക്ടർ ആണ് എത്ര രണ്ടു ദിവസമായേ ഉള്ളൂ തുടങ്ങിയിട്ട് അപ്പോൾ അതിനു വേറെ ഇതുവരെ എന്തെങ്കിലും മെഡിസിൻ എടുത്തായിരുന്നോ പാരസെറ്റാമോളോ എന്തെങ്കിലും ശരീര വേദനയുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്തു ഒന്ന് ഒമിക്രോൺ ഒക്കെ ഉള്ളതുകൊണ്ട് ടെസ്റ്റ് ചെയ്തു ഡോക്ടറെ അല്ല സിന്ധു ഒമിക്രോണോക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കേണ്ടി വരും ഞാൻ രാവിലെ എല്ലാ ദിവസവും ഞായറാഴ്ച സൺഡേ ലീവാണ് ബാക്കി മണ്ടെ റ്റു സാറ്റർഡേ അല്ല തിങ്കളഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ ഒരു പത്തു മുതൽ വൈകുനേരം ഉച്ചക്ക് രണ്ടു മണി വരെ പിന്നെ ഒരു അവർ ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ റസ്റ്റ് മൂന്ന് തൊട്ട് അഞ്ചു മണി വരെ സമയത്തുണ്ട് ക്ലിനിക്കിലുണ്ട് അപ്പോൾ നിങ്ങൾ വരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാതെ മരുന്ന് തന്നാൽ ശരിയാവില്ല കരണം എന്താണെന്ന് വച്ചാൽ ഇപ്പോൾ കൊതുകു കടിച്ചിട്ടാണോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ കോവിഡിൻ്റെ ഒരു ഒമിക്രോൺ വെരിയൻറ്റിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ആണോ ശരിക്കും ടെസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് മരുന്ന് തരാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ക്ലിനിക്കിലേക്ക് വന്നാലാണ് നമുക്ക് ശരിക്ക് ഡയഗ്നോസ് ചെയ്ത് അതിനു മെഡിസിൻ തരാൻ പറ്റുള്ളൂ അത് ആ അത് ഒരു പക്ഷെ ഇതുമായിട്ട് നിങ്ങൾക്ക് ഏജ് എത്രയായി എന്നാണ് പറഞ്ഞത് ആ അതൊരു ഫോർട്ടി പ്ലസാകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ എല്ലുകൾകൊക്കെ ഒരു ചെറിയ തേയ്മാനമൊക്കെ സംഭവിക്കുകയും നമ്മൾക്ക് വേദനയൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും നിങ്ങൾക്ക് ഇതുണ്ടോ ഈ വെരികോസ് വെയ്ൻ അങ്ങനെ ഒക്കെ ഉണ്ടോ മുട്ടുവേദന ആ അത് ഈ എല്ലിൻ്റെ തേയ്മാനത്തിനു തേയ്മാനം കൊണ്ടൊക്കെ സംഭവിക്കുന്നതാണ് അതിനു നാച്ചുറലായിട്ട് ഒരു റെമഡിയെന്നു പറയുന്നത് നമ്മളെല്ലാ ദിവസവും കുറച്ചു ഈ മുത്താറി പന്നി പുല്ലി ഇല്ലേ പന്നിപ്പുല്ലു മുത്താറി അതിൻ്റെ പൊടി നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അതു കുറച്ചു കുറുക്കിയൊക്കെ കഴിക്കുകയാണെങ്കിൽ എല്ലുകൾക്ക് നല്ല ബലം കിട്ടും അതൊരു ഫോർട്ടി ഒരു നാല്പത് കഴിഞ്ഞ സ്ത്രീകളിലും പുരുഷന്മാരിലൊക്കെ ഈ എല്ലിന് തേയ്മാനം സംഭവിച്ചു ഈ വേദനകളൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് അതു ചെയ്തു നോക്കുന്നത് നല്ലതാണ് പിന്നെ ഞാനിപ്പം ക്ലിനിക്കിലേക്ക് നിങ്ങൾ വരുമല്ലോ അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള മെഡിസിൻ എടുക്കാം അല്ലാതെ ഇപ്പോൾ നമ്മൾ ഫോണിൽ കൂടെ മാത്രം പറയുമ്പോൾ നമുക്ക് സിംറ്റം വച്ച് മാത്രം ഇന്നത്തെ കാലത്തു മരുന്നു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ അത് കൊണ്ട് നിങ്ങൾ എത്രയും വേഗം നാളത്തന്നെ തീർച്ചയായിട്ടും അതെ ഈ പനിയെന്നു പറയുന്നത് അസുഖമല്ല ആക്ച്വലി പനി എന്നു പറയുന്നത് നമുക്ക് മറ്റു രോഗങ്ങളുടെ ഒരു മുന്നോടിയായിട്ട് വരുന്നതാണ് പനി അപ്പം പനിക്ക് മാത്രമായിട്ട് നമ്മൾ ചികിൽസിച്ചിട്ട് കൊണ്ട് കാര്യമില്ല നമ്മൾ അത് കൃത്യമായിട്ട് എന്താണെന്ന് കണ്ടുപിടിച്ച് തന്നെ ചികിൽസിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പാരസെറ്റമോൾ കഴിച്ചോളൂ എന്ന് പറയാൻ പറ്റും പക്ഷെ ഈ ഇപ്പം ഒരു രാത്രിയുണ്ടല്ലോ നാളത്തേക്കല്ലേ നിങ്ങൾ വരുന്നുള്ളു ഇന്ന് ഇപ്പോൾ ഭയങ്കര കൂടുകയാണെങ്കിൽ ഒരു അഞ്ഞൂറിൻ്റെ ഒരു പാരസെറ്റമോൾ കഴിച്ചോ ഇന്നത്തേക്ക് മാത്രം കണ്ടിന്യൂ ഒരു തുടർച്ചയായിട്ട് എടുക്കേണ്ട അത് ഞാൻ ഇത് ടെസ്റ്റ് ഒക്കെ ചെയ്ത് എന്താണെന്നു നോക്കിയിട്ട് മാത്രം നമുക്ക് മരുന്നെടുക്കാം ആയിക്കോട്ടെ ഓക്കെ ഓക്കേ സിന്ധു താങ്ക് യു സൊ മച്ച് ഓക്കേ ഒത്തിരി നന്ദി ഒക്കെ ഒക്കെ